ഇപ്പോള് ആക്ച്വലി സ്കൂളുകളിൽ ഒന്നും അങ്ങനെ ഒരു കോഴ്സ് കൊടുക്കേണ്ടതായ ഒരു ആവശ്യമേ വരുന്നില്ല ചെറിയ കുട്ടികള് മുതല് ഗാഡ്ജറ്റ്സുകള് യൂസ് ചെയ്ത് നല്ല തഴക്കമായിട്ടുണ്ട് അവരെല്ലാം ഗ്രാസ്പ് ചെയ്ത് പെട്ടെന്ന് പഠിക്കുന്നുണ്ട് അപ്പോള് സാങ്കേതികവിദ്യകളെ കുറിച്ചും കമ്പ്യൂട്ടറുകളെ കുറിച്ചും പഠിക്കാൻ ഒരുപാട് കോഴ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് എ ഐ പോലെ കോഴ്സുകൾ ഉണ്ട് ഡിപ്ലോമയുണ്ട് പ്രൊഫഷണൽ കോഴ്സുകൾ ഉണ്ട് ജസ്റ്റ് സോഫ്ട്വെയർസ് പഠിപ്പിക്കുന്ന കോഴ്സുകൾ ഉണ്ട് ഇപ്പോള് നമ്മള് എടുക്കുന്ന സ്ട്രീമിന് അനുസരിച്ച് അതിന് ഹെൽപെയ്യുന്ന സോഫ്റ്റ്വെയറുകള് മാത്രം പഠിപ്പിക്കുന്ന സെൻററുകൾ ഉണ്ട് ചെറിയ പാരലൽ കോച്ചിങ് സെൻററുകൾ ഉണ്ട് പിന്നെ സ്കൂളുകളിൽ എന്തായാലും ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടൊരു വിഷയം ഉണ്ട് പക്ഷെ ഇപ്പോള് അതൊക്കെ കുറച്ചൂടി ഡെവലപ്പ്ഡ് ആയി കാരണം ബേസിക്സ് ഒന്നും പിള്ളാരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല പിള്ളേരുടെ ആപ്റ്റിട്യൂഡിന് അനുസരിച്ച് അതിൻ്റെ ഇത് മാറ്റിക്കൊണ്ടേ ഇരിക്കയാണിപ്പോള് ഇപ്പോള് ലൈക്ക് പിള്ളാരുടെ ആപ്റ്റിട്യൂഡ് ഇപ്പോള് കുട്ടികൾക്ക് ഗേമിങ്ങിനോടാണ് താല്പര്യമെങ്കിൽ അതിൻ്റെ ബേസിക്സും അത് സ്കൂളുകളിൽ അങ്ങനെ പ്രീസൈസ് ചെയ്ത് പഠിപ്പിക്കുന്നൊന്നുമില്ലല്ലോ ഇപ്പോള് കുട്ടികള് തന്നെയാണ് ഇപ്പോള് ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോം ഉണ്ട് അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇത് ഇഷ്ടംപോലെ അവൈലബിലിറ്റി ആണ് എന്ത് വേണമെങ്കിലും പഠിക്കാനാണെങ്കിലും ഒക്കെ അവർക്ക് ഇഷ്ടംപോലെ അവൈലബിലിറ്റി ആണ് അപ്പോള് ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാവുന്നതേ ഉള്ളു അപ്പോള് അവർക്ക് പ്രത്യേകിച്ച് ഒരു കോഴ്സ് ആയിട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ചെറിയ കുട്ടികൾക്ക് പിന്നെ സ്കൂളുകളിൽ ഒന്നും അങ്ങനെ പ്രീസൈസ് ചെയ്ത് കോഴ്സൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ പഠിപ്പിക്കണം ടെക്നോളജി അല്ലെങ്കിൽ ഇന്നയിന്ന ടെക്നോളജിക്ക് അതിൻ്റെ പ്രോസെന് കോൺസ് പഠിപ്പിക്കണം അതിന്റെ ദൂഷ്യവശങ്ങളും നല്ലവശങ്ങളും കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുക അങ്ങനെ ഒരു സംഭവം വരുന്നത് നല്ലതായിരിക്കും അല്ലാതെ എല്ലാ ടെക്നോളജി വേസ്റ്റ് സാധനങ്ങള് വരും കാരണം ഇപ്പോള് വീട്ടിലുള്ള മുതിർന്നവരെക്കാട്ടിലും കുട്ടികളാണ് എല്ലാത്തിന്റെയും ടെക്നിക്കല് പെട്ടെന്ന് ഗ്രാസ്പെയ്യുന്നത് കാരണം അവരതാണ് ഹാന്ഡിലെയ്യുന്നത് ഇപ്പോള് അവര് ചെറിയ ചെറിയ കുട്ടികള് ആയിരിക്കുമ്പോള്ത്തന്നെ അവരെ ഗാഡ്ജറ്റ്സുകളും ഉപകരണങ്ങളും ടെക്നോളജി വൈസ് സാധനങ്ങളുമൊക്കെയാണ് അവര് കാണുന്നതും അതിൻ്റെ എല്ലാം ടെക്നിക്കൽ വൈസുകളും അവര് പെട്ടെന്ന് ഗ്രാസ്പേയ്യെം അത് യൂസേയെം ചെയ്യുന്നതാണ് അപ്പോള് പിന്നെ പ്രത്യേകിച്ച് ഒരു കോഴ്സ് ഒന്നും വേണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം പിന്നെ കുട്ടികള് ഇത് ടെക്നോളജിയും കാര്യങ്ങളും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യപ്പെടാത്ത കുട്ടികൾക്ക് ഒരു എന്തെങ്കിലും ഒരു കോഴ്സിന് കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഈ കുട്ടികള് വളർന്ന് അവരൊരു പ്രൊഫഷൻ എന്ന രീതിയിലേക്ക് എത്തുമ്പോള് അവര് ചൂസ് ചെയ്യുന്ന പ്രൊഫഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവര് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷൻ അനുസരിച്ചിട്ട് അതിനെ അതിനെ ഹെൽപെയ്യുന്ന സോഫ്റ്റ്വെയറുകള് ഇപ്പോള് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിന് ഫോട്ടോഷോപ്പ് ഉണ്ട് അതേപോലെ കുറേ സോഫ്റ്റ്വെയറുകൾ ഉണ്ട് പിന്നെ ഡോക്ടർസ്സൊക്കെയാണെങ്കിൽ അവർക്ക് യൂസേയ്യുന്ന സർജിക്കൽ ടെക്നോളജികള് അല്ലെങ്കിൽ സ്കാനിംഗ് ടെക്നോളജികള് അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കുക പഠിപ്പിക്കുക അത് ഓട്ടോമാറ്റിക്കലി ആ കോഴ്സിനെ ബേസ് ചെയ്ത് വരുന്നുണ്ട് അതുപോലത്തെ കോഴ്സുകളും ഉണ്ട്